ഹലോ ആ അതേല്ലോ ആൽബി കോച്ചായിരുന്നോ ഓ ഓക്കെ ഓക്കെ കോച്ച് എന്ത് ചെയ്യാനാണ് സർ എനിക്ക് എനിക്ക് കുറച്ചു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നത് അപ്പം നല്ലൊരു ബൂട്ട് എനിക്ക് മേടിക്കാൻ പറ്റിയിരുന്നില്ല മ്മ് ഞാൻ എൻ്റെ കാലിൻ്റെ സൈസ് എട്ടായിരുന്നു പക്ഷേ ഞാൻ ഇട്ട് കളിച്ചത് ആറായിരുന്നു അപ്പം അതിൻ്റേതായ ഒരു ടിസ്കംഫർട്ട് എനിക്കുണ്ടായിരുന്നു ങാ ശരിയാണ് ഉറപ്പായിട്ടും ഞാൻ ബൂട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടൊരു കാര്യവുമില്ലെന്നെനിക്കറിയാം പക്ഷേ ആ ഒരു സിറ്റുവേഷനിലെനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയില്ല എൻ്റെ മ്മ് എൻ്റെ വീട്ടിലെ ഓരോ ആ വീട്ടിലെ ഓരോരോ പ്രശ്നങ്ങൾ എന്നെ വല്ലാതലട്ടുന്നു

ഉറപ്പായിട്ടും സർ ഉറപ്പായിട്ടും ആ ഇല്ല എന്നിരുന്നാലും ഞാൻ അടുത്ത പ്രാവശ്യം മാക്സിമം ഞാൻ പരിശ്രമിച്ചോളാം സർ ഞാനിപ്പം എനിക്ക് വേണ്ട ഒരു അങ്കിളിനോട് എൻ്റെ ഒരു കസിനോട് ഞാൻ പൈസ ചോദിച്ചിട്ടുണ്ട് ആ ഒരു പൈസ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ബൂട്ട് മേടിക്കും എൻ്റെ പെർഫോമൻസ് വളരെയധികം വർദ്ധിക്കും ആ അത് ആ അതെനിക്കെന്തോ ഒരു അതായിപ്പോയി സാർ അതു കൊണ്ടാണ് ഞാൻ പിന്നെ പറയാഞ്ഞത് ആ ഫുഡ്ഡി ഫുഡ്ഡിൻ്റെ കാര്യം ഫുഡ്ഡിൻ്റെ കാര്യം എനിക്ക് ലേറ്റായിട്ടാണ് ഞാൻ വീട്ടിൽ ചെല്ലുന്നത് അപ്പം എനിക്കൊരു എനിക്ക് തളർച്ച ഭയങ്കര ക്ഷീണമാണ് ഫുഡ് കഴിക്കാനുള്ളൊരു അതൊന്നും ഇല്ല ആ ആ ഉറപ്പായിട്ടും ശ്രദ്ധിക്കാം സാർ ശ്രദ്ധിക്കാം എന്തായിരുന്നു സർ ആ അത് ഞാൻ ഡെയിലി ഓരോന്ന് കുടിക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ കുറച്ചോളാം സോഫ്റ്റ് ഡ്രിങ്ക്സ് അതെന്താന്നറിയുമോ സാറേ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഞാൻ കുടിക്കും തോറും എനിക്കെന്താ ഒരെനർജി ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ അത് ശരീരത്തിന് നല്ലതല്ലെന്നെനിക്കറിയാം

സോറി കോച്ച് സോറി കോച്ച് ഞാൻ എല്ലാം ശ്രദ്ധിച്ചോളാം ആ ഓക്കേ കോച്ച് ഞങ്ങൾക്കറിയാം ഞങ്ങളെന്തു ചെയ്താലും അത് കൊച്ചിനെ ബാധിക്കത്തുള്ളൂ എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എന്നിരുന്നാലും ഞങ്ങളുടെ സാഹചര്യങ്ങളുടെ പരിഗണിച്ചു ങാ കുഴപ്പമില്ല സർ അടുത്ത പ്രാവശ്യം ഞങ്ങളെല്ലാം ഞാൻ എല്ലാം ഓക്കെ ആയിക്കോളാം ഇനിയിപ്പം നെക്സ്റ്റ് സാറ്റർഡേ അടുത്ത ദിവസം അടുത്ത ദിവസം ഞങ്ങൾക്ക് മാജിസ്റ്ററി യുണൈറ്റഡുമായിട്ട് ആ ഒരു മാനേജ്മെൻറ്റ് ടീമിലുള്ള ഒരു ടീമുമായിട്ടാണ് കളി

താങ്ക് യൂ സാർ താങ്ക് യൂ ആ എനിക്കറിയാം സാർ ഞാൻ ഉറപ്പായിട്ടും ഇമ്പ്രൂവ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്തോളാം ഉറപ്പായിട്ടും സാർ ആ ശരിയാണ് സാർ ഞാൻ ഉറപ്പായിട്ടുമിനി ശ്രദ്ധിച്ചോളാം വരുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് ന്യൂട്രീഷ്യൻ ആ ഫുഡ്ഡിൻ്റെ കാര്യങ്ങളും ആ ഓക്കെ ഓക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ കൃത്യമായിട്ടും വന്നോളാം എനിക്കീ വര ഓക്കേ സാർ ആ ഓക്കേ സാർ താങ്ക് യൂ എന്നാൽ നമുക്കടുത്ത ദിവസം കാണാം ഓക്കേ സാർ ശരി